ഹലോ ആ ഇത് കമ്പ്യൂട്ടർ ഷോപ്പ് തന്നെ ആണ് ഓ അപ്പോൾ പോരു നിങ്ങൾ ഇപ്പം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോരു എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആയി ഇരിക്കുന്ന സമയം നമ്മളുടെ ഷോപ്പ് രാവിലെ ഒരു ഏഴിന് തുറന്നിട്ട് ഒരു പത്തിന് വരെ ഏകദേശം ഉണ്ടാകും അപ്പം അത് കഴിയുന്ന സമയത്ത് പോരുകയാണെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോരുകയാണെന്ന് ഉണ്ടെങ്കിൽ അത്രയും നന്നായി അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ എന്നാണ് ഫ്രീ ആകുക

ഓ

പിന്നെ ആ ഇ എം ഐ നമുക്ക് ഈ ഡിവൈസിന് നമ്മൾ ഈ എന്താ പറയുക ഈ ഡിസ്പ്ലേയ്ക്ക് നമ്മൾ ഇ എം ഐ കൊടുക്കുന്നില്ല നമ്മൾ ഇ എം ഐ കൊടുക്കുന്നത് സാ പുതിയത് വാങ്ങുകയാണ് എന്ന് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ഞാൻ മാറ്റുന്ന സമയം കൊണ്ട് ഒരു പുതിയ ഡിവൈസ് വങ്ങുകയാണെന്ന് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് അത് നമ്മൾ ഇ എം ഐ കൊടുക്കുന്നുണ്ട് അത് അതിന് നമുക്ക് ഒരു പല റേറ്റിന് വരുന്ന സാധനങ്ങളും ഉണ്ട് ഇവിടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പല റേറ്റുള്ളതാണ് വരുന്നത് ആ പുതിയതും ഉണ്ട് പുതിയതാണ് ഏറ്റവും ബെറ്റർ ഞങ്ങൾ ഈ സമയത്ത് വങ്ങുന്നതിന് ഏറ്റവും ബെറ്റർ പുതിയത് തന്നെ ആയിരിക്കണം അത് നമുക്ക് ഇ എം ഐ ആയിട്ട് ഏ

ഏകദേശം ഇ എം ഐ ആണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു നമ്മളുടെ നമ്മളുടെ വരുമാനത്തിനോട് താങ്ങുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോകാം അതെല്ലാം ഒറ്റ അടിക്ക് ഒറ്റ പ്രൈസിന് കിട്ടുകയാണെന്ന് ഉണ്ടെങ്കിൽ അത് അത് കുറച്ച് ഇത് ആകും അൻപത് അറുപത് ഒക്കെ പല റേറ്റിൽ വരുന്ന സാധനങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഡിസ്പ്ലേ മാറ്റുകയാണോ അതോ എന്താണ് ചെയ്യുന്നത് അതോ ആ ഓക്കെ എന്നാൽ നിങ്ങൾ പറ്റുന്ന സമയത്ത് നിങ്ങൾ വരൂ ഈ ഷോപ്പിൽ കേട്ടോ

ആയിക്കോട്ടെ ശരി എന്നാൽ